വളരെ നല്ലൊരു അഭിപ്രായമാണ് ഞങ്ങളുടെ ഇവിടത്തെ കായിക വിനോദങ്ങൾ കളിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങളുടെ നാട്ടുകാർക്ക് കാരണം ഞങ്ങളുടെ അടുത്തുള്ള സ്കൂള് തന്നെ അറിയപ്പെടുന്നത് ഇല്ലെങ്കിൽ ഞങ്ങടെ മാത്തൂര് പറഞ്ഞ നാടറിയപ്പെടുന്നത് പാലക്കാടിലെ തന്നെ മാത്തൂരറിയപ്പെടുന്നത് കായികപരമായി കുട്ടികൾ കളിക്കുന്ന വിനോദങ്ങളും കായിക കലാകായിക മേളകളിൽ കുട്ടികൾ കാഴ്ചവയ്ക്കുന്ന മികച്ച പ്രട പ്രകടനമാണ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഞങ്ങടെ കൊച്ചു ഗ്രാമത്തെ കുറച്ച് പേരുടെ ഇടയിൽ എങ്കിലും അറിയപ്പെടുന്നതാക്കി മാറ്റുന്നത് കലാകായിക വിനോദങ്ങൾ തന്നെയാണ് അതുകൊണ്ടുതന്നെ ഗ്രാമീണരുടെ അഭിപ്രായത്തിൽ കലകളും കായികമേളകളും വളരെ നല്ലൊരു അഭിപ്രായമാണ് ഇവിടെ കാണുന്നത്